മൂന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഴ് ഏട്ട പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പതിനഞ്ച് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രണ്ട് എട്ട് രണ്ടായിരത്തി പതിനൊന്ന്